ഒരായോധനകലാകാരനായി വളരുകയും പരിണമിക്കുകയും ചെയ്യുന്നതിന് ഞാനങ്ങനെ സ്വയം നോക്കിക്കൊണ്ടു നിന്നുള്ള ഒറ്റ ചിന്ത മാത്രമേയുള്ളു നമ്മളെല്ലാവരും എല്ലാവർക്കും നമുക്കേറ്റവും കുറവുള്ള സംഭവമാണ് കണ്ടിന്യൂവേഷനല്ലെങ്കിലൊരു കാര്യം ചെയ്താൽ അത് മുന്നോട്ടു കൊണ്ടുവായെന്നുള്ളത് ഒരാൾക്കൊരു കാര്യത്തിനോട് ഇഷ്ടം തോന്നുന്നു ആ കാര്യമെടുക്കുന്നു പിന്നെ അതു ചെയ്യുന്നു ചെയ്തു കഴിഞ്ഞൊരു പത്ത് വട്ടം ചെയ്യുമ്പോൾ നമ്മളത് മടുക്കുന്നു ഈ ഒരു ചിന്തയാണ് നമ്മളെ ഇപ്പോഴും വഴി തിരിച്ചു വിടുന്നു അല്ലെങ്കിൽ എപ്പോൾ പുറകോട്ടു കൊണ്ടു പോകും ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് നമുക്കൊരു കമ്മിറ്റ്മെറ്റുണ്ട് ടു ദാറ്റ് ബെസ്റ്റ് എന്നു വെച്ചാൽ നമുക്കൊരു കമ്പനി ഒരു സാധനത്തിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പുറകെ നന്നായിട്ടു പോകും നമുക്ക് ചിലപ്പോൾ വേദനകളുണ്ടാകും പരിക്കുകളുണ്ടാകാം തിരിഞ്ഞു പോകേണ്ട അവസരങ്ങളുണ്ടാകാം നമുക്ക് തോൽവികളുണ്ടാകാം അതിലൊന്നും പരാജയപ്പെടാതെ മുന്നോട്ടു പോകുക എന്നുള്ളതു മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നതു കാരണം എപ്പോഴാണെങ്കിൽ പോലും നമുക്ക് പരാജയങ്ങൾ സംഭവിച്ചേക്കും അതിലൊന്നും പറഞ്ഞേക്കരുത് നമ്മളെപ്പോഴും ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതു തന്നെ നമുക്കെല്ലാ പരാചയങ്ങളും വെച്ചിട്ടായിരിക്കും നമുക്കത് മറികടന്നു മുന്നിട്ടു നല്ല നിലയിലെത്താൻ വേണ്ടിയാണ് ആയോധനകലകളിലാണെങ്കിലും ഞാനങ്ങനെയാണ് കാണുന്നത് നമ്മളെപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യും പ്രാക്ടീസ് മെയ്ക്ക് എ മാൻ പെർഫെക്റ്റൊക്കെ നമ്മളെപ്പോഴും നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക നമ്മളങ്ങനെ നിരന്തരമായി പരിശ്രമിച്ച് പരിശ്രമിച്ച് പരിശ്രമിച്ചൊരു വിധത്തിൽ നമ്മളൊരു സമയാകുമ്പോഴത്തേക്കും നമ്മളീ പരിശ്രമിക്കുന്നത് കൂടുമ്പോൾ നമ്മളറിയാതെ നമ്മളുടെ ലെവലും ഇങ്ങനെ ഇങ്ക്രീസായി കൊണ്ടിരിക്കും അപ്പം നമ്മൾ ബാക്കിയുള്ളവർ ചെയ്യുന്നതിനെക്കാട്ടിലൊരുപടി മുന്നിൽ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തു കൊണ്ടിരുന്നാൽ എങ്ങനെയാണെങ്കിലും നമുക്കൊരു ഡെവലപ്മെൻറ്റുണ്ടാകും ഇഫ് ലോസ്റ്റ് എഗൈൻ വി വിൽ വിൻ എഗൈൻ നമ്മൾ വീണ്ടും തോറ്റു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ജയിക്കുമെന്നതിലൊക്കെ നമ്മൾ തോറ്റു കഴിഞ്ഞാൽ തോറ്റ് നമ്മൾ പാഠങ്ങൾ കൊണ്ട് ജയിച്ചു കൊണ്ടിരിക്കും അത് ഏത് ഏതൊരു കാര്യത്തിനാണെങ്കിലും അതാണ് ഞാനുപയോഗിക്കുക കാരണം ഏതൊരു ആയോധനകലയാണേൽ പോലും നമുക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട് ചെയ്യാൻ ആ ബുദ്ധിമുട്ടുകളെ എല്ലാമറിയാൻ എല്ലാറ്റിനും ഓരോ ബുദ്ധിമുട്ടുണ്ട് ചെയ്യാൻ ആദ്യമേ നമ്മൾ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കുഞ്ഞായ സമയത്തു നമുക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു നമ്മൾ ബുദ്ധിമുട്ടിയാണ് നടക്കാൻ പഠിച്ചത് ഏതൊരു കാര്യവും അതു പോലെ തന്നെയാണ് ആയോധനകലയും അതുപോലെ തന്നെയാണ് നമ്മളെത്ര ബുദ്ധിമുട്ടിയാൽ പോലും നമുക്കത് പഠിക്കണം പഠിക്കാതിരിക്കാൻ നമുക്കൊരിക്കലും സാധിക്കില്ല നമ്മളതെല്ലാം പഠിച്ചു കൊണ്ടിരിക്കണം പഠിച്ച് അതിൻ്റെ കണ്ടിന്യൂവേഷനൊരിക്കലും കളയാതിരിക്കണം ആൾക്കാർ കണ്ടിന്യൂവേഷൻ്റെ പുറകേ പോകാത്തതാണ് നമ്മളൊരു കാര്യത്തിനു പോയാൽ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തു കൊണ്ടിരിക്കുക കണ്ടിന്യൂ ചെയ്യത് കണ്ടിന്യൂയെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്കൊരു നല്ല നിലയിലെത്തണം എൻ്റെ കാഴ്ചപ്പാടിലിതെനിക്ക് പഠിച്ച് നല്ലൊരു നിലയിൽ എത്തണമെന്നാണ് നല്ലൊരു നിലയിലെന്നു പറഞ്ഞ് എനിക്ക് സ്വന്തമായിട്ട് ഏതൊരു കാര്യം ചെയ്യാനും എനിക്ക് സ്വന്തായൊരു കോൺഫിഡൻസുണ്ടാകണം എന്നും ഞാൻ അടി ഉറച്ചു വിശ്വസിക്കുന്നു എന്നാലാകുന്നതും പറ്റുമോ എനിക്കത്രത്തോളം ചെയ്യാൻ സാധിക്കുന്നു അതിനേൽ അതിനിതിനെന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു കാരണം ഒരിക്കലും എനിക്കൊരു ഭയം ഭയം എന്തൊരു കാര്യം ചെയ്യാൻ പോയാലും ഭയം ഉണ്ടാകരുത് ഭയത്തിനെ എനിക്കു മറികടക്കാൻ സാധിക്കണമെന്നുള്ളതാണ് ഈ ഒരായോധനകലയിലൂടെ ഞാനത് സ്വീകരിക്കുന്നു ഒരിക്കലും അനീതി കണ്ടാൽ എതിർക്കാനും അതുപോലെ തന്നെ അധർമ്മം ചെയ്യുന്നതു കണ്ടാൽ എനിക്ക് അതിനെതിരെ പ്രതിഷേധിക്കാനുള്ള ധൈര്യം അതു തരും ഏതൊരു കാര്യത്തിനും നമ്മളെത്രത്തോളം കോൺഫിഡൻറ്റാണോ അത്രത്തോളം ധൈര്യത്തോടു കൂടി നമുക്കേതൊരു കാര്യവും ചെയ്യാൻ സാധിക്കും ആയോധനകളെന്നു മാറ്റി ഉരച്ചു നോക്കുമ്പോഴത്തേക്കും പിന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഭാവിയിലെന്നെയൊരു നല്ല മനുഷ്യനാക്കി വാർത്തെടുക്കാൻ ശരിക്കും ഈ ആയോധനകലകളോടു സാധിക്കും നമ്മുടെ മൈൻറ്റും അതു പോലെ തന്നെ ഫിസിക്കലും നമ്മൾ വളരെയധികം സ്ട്രെങ്ത്താകും അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടർ നമ്മുടെ സ്വഭാവ സവിശേഷതകൾ സ്വഭവങ്ങളെല്ലാം നല്ലതായി കൊണ്ടേ ഇരിക്കും